സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിന് ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങള് പോലെയാണ് സാങ്കേതികവിദ്യയുടെ ഉപയോഗം ദുരുപയോഗവും ഉപയോഗങ്ങൾ പലതുണ്ട് എന്നാൽ അതിൻ്റെ ഡബിൾ മടങ്ങ് ദുരുപയോഗങ്ങളുണ്ട് നമുക്ക് ചുറ്റുമുള്ള ലോകവുമായി ഇടപഴകാൻ തന്നെ മനുഷ്യർ മറന്നു കൊണ്ടിരിക്കുകയാണ് അവൻ്റെ ലോകത്തിൽ ഒരു മൊബൈലും ഒരു കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയും മാത്രമായി ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു ആളുകൾ കൂടുതലായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ അതിൽ നിന്ന് സഹായങ്ങൾ മാത്രമല്ല സ്വീകരിക്കുന്നത് ജീവിതം പോലും സോഷ്യൽ മീഡിയയില് നശിക്കുന്ന പല വാർത്തകളും നമ്മള് കേട്ടിട്ടുണ്ട് ച്ച് ചില പ്രതികൂല ഫലങ്ങൾ എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയയുടേതെന്ന് ചോദിച്ചാൽ വ്യക്തി ബന്ധങ്ങൾ കുറക്കാൻ സോഷ്യൽ മീഡിയ സഹായിക്കുന്നു ഒരു കുട്ടി ഇന്ന് ഒരു മൊബൈലിൻ്റെ മുമ്പിൽ ചിലവഴിക്കുന്ന സമയം നമുക്ക് നമ്മുടെ കണ്ണുകൾ ഞെട്ടിപ്പിക്കുന്നതാണ് ഇടുപത്തിനാല് മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ പന്ത്രണ്ടും പതിമൂന്നും മണിക്കൂർ വരെ ഫോണിൻ്റെ സ്ക്രീൻ ടൈം ഉപയോഗിക്കുന്ന കുട്ടികളുണ്ട് രക്ഷിതാക്കളുണ്ട് അഞ്ച് ഒരു വീട്ടിൽ അഞ്ച് വ്യക്തികളുണ്ടെങ്കിൽ അഞ്ച് വ്യക്തികളുടെ കയ്യിലും സ്മാർട്ട് ഫോണുണ്ടെങ്കിൽ അഞ്ച് പേരും അഞ്ച് ലോകത്താണ് പരസ്പരം ഒന്ന് മിണ്ടുവോ സംസാരിക്കുവോ ചെയ്യാതെ ബന്ധങ്ങൾ അറ്റു പോകാൻ സോഷ്യൽ മീഡിയ കാരണമാകുന്നു സോഷ്യൽ മീഡിയയുടെ മേന്മകളെപ്പറ്റി പറയുവാണെങ്കിൽ ലോകങ്ങൾ തമ്മിലുള്ള ദൂരം കുറക്കാൻ സോഷ്യൽ മീഡിയക സഹായിക്കുന്നു ഒരു കത്തെഴുതി അത് ഒരാൾക്ക് അയച്ച് കിട്ടുന്ന സമയത്തിൻ്റെ നൂറിലൊന്ന് സെക്കൻറ്റ് കൊണ്ട് ഒരു സെക്കൻറ്റ് കൊണ്ട് നമ്മള് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ലോകത്ത് എവിടെയായിരിക്കുന്ന വ്യക്തിക്കും അത് സെൻറ്റ് ചെയ്ത് കൊടുക്കാനും അവരെ വിവരങ്ങൾ അറിയിക്കാനും സോഷ്യൽ മീഡിയ വഴി സഹായിക്കുന്നു പല രാജ്യങ്ങളിൽ നിൽക്കുന്നവർക്ക് പരസ്പരം കാണാനും സംസാരിക്കാനും സോഷ്യൽ മീഡിയ നമ്മളെ സഹായിക്കുന്നു എന്നാൽ ഈ സാങ്കേതിക വിദ്യ ഉപയോഗം നമ്മുടെ ചുറ്റുമുള്ള ലോകവുമായി ഇടപഴകുന്ന രീതിയില് നമ്മളെ മാറ്റിമറിച്ചു മറ്റുള്ള വ്യക്തികളുമായിട്ട് സംസാരിക്കാൻ തന്നെ മറന്നു പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടികളാണ് സംസാരശേഷി ഇല്ലാത്ത കുട്ടികളാണ് ഒരു വിഷയത്തെപ്പറ്റി പ്രതികരിക്കാനോ പ്രതിഫലിപ്പിക്കാനോ ഒന്നിനും അവന് സമയമില്ല അവൻ്റെ ലോകം അവൻ്റെ മൊബൈലും അവൻ്റെ കാര്യങ്ങളും മാത്രമാണ് ആ മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനും അതിലെ ഗേമുകൾ കളിച്ചിരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് അവർ മുൻതൂക്കം കൊടുക്കുന്നത് എന്നാൽ ലോകവുമായി ഇടപഴകാൻ അവർക്ക് തീരെ അറിയുകയില്ല ഒരു ഈ വീടിൻ്റെ വീടിൻ്റെ ചുറ്റും ഒരു മരണമുണ്ടായാൽ ആ മരിപ്പ് വീട്ടിൽ പോയി മരിച്ച വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പകരം അവിടെ പോയി മൊബൈലിൽ തോണ്ടി ഇൻസ്റ്റാഗ്രാമിൽ റീല് കാണുന്ന കുട്ടികളെ നമ്മൾ കാണുന്നുണ്ട് എന്നാലും ആളുകൾ കൂടുതലായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് കാരണം അതിലെ ആസ്വാദനശേഷിയാണ് ഒരു ആരും കൂടെയില്ലാത്ത സമയങ്ങളിൽ ടൈം പാസിന് വേണ്ടി ആരംഭിക്കുന്നതായിരിക്കും ഫോണിൻ്റെ ഉപയോഗം എന്നാൽ അത് പിന്നെ വളർന്ന് നമ്മുടെ ജീവിതം തന്നെ നശിപ്പിക്കുന്നു മനുഷ്യൻ്റെ മടിയനാക്കുന്നത് മൊബൈൽ ഫോണാണെന്ന് വേണമെങ്കിൽ പറയാം സോഷ്യൽ മീഡിയയുടെ ഉപയോഗം മൂലം എല്ലാം വിരൽത്തുമ്പിൽ എത്തുന്നത് കൊണ്ട് തന്നെ മനുഷ്യൻ മടിയനാവുന്നു കഷ്ടപ്പെടാൻ ആർക്കും തന്നെ തയ്യാറാവാൻ സാധിക്കുന്നില്ല അങ്ങനെ ഇരുന്നാലും യാത്രാ വേളകളിൽ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ എവിടെ വേണെങ്കിലും പോകാം അല്ലാതെ ഒരു യാത്ര പോകുമ്പോൾ പഴയകാലത്തായിരുന്നെങ്കിൽ രണ്ടും മൂന്നും കടകളിൽ നിർത്തി അവിടെ ബന്ധങ്ങൾ പുതുക്കി അവരോട് സംസാരിച്ച് ഇടപഴകി പൊക്കോണ്ടിരുന്ന മനുഷ്യൻ ഇന്ന് അവൻ്റെ കാറിനുള്ളിൽ മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ് അതില് ഗൂഗിൾ മാപ്പ് പറയുന്ന വഴികളിലൂടെ അവൻ സഞ്ചരിക്കുന്നു എ സി ഇട്ട് ഫുൾ നാല് ജനലും അടച്ച് പരസ്പര ലോകവുമായുള്ള ബന്ധത്തെ അറ്റ് നിർത്തിയാണ് അവൻ ജീവിക്കുന്നത് കുട്ടികളാണെങ്കിൽ തന്നെ കുട്ടികൾക്കായി സെപ്പറേറ്റ് ഗെയിമിംഗ് റൂം എന്ന് പറയുന്ന ഒരു പുതിയ സമ്പ്രദായം വീടുകളിൽ രൂപപ്പെടുകയാണ് അവിടെ പോയി അവൻ്റെ ഗെയിമുകളും അവൻ്റെ ലോകവുമായിട്ട് അവൻ ഒരു ദിവസത്തെ പാഴാക്കി കളയുന്നു വ്യക്തി ഈവൻ നമ്മുടെ കുട്ടികളെ പള്ളികളാണേൽ പോലും അവിടെയുള്ള സ്ഥലങ്ങളിൽ കളിക്കാനെത്തുന്ന കുട്ടികളെ എണ്ണം ശ്രദ്ധിച്ചാൽ നമുക്ക് അറിയാം ഇരുപത് മുപ്പത് എന്നൊക്കെ പണ്ട് കളിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഇന്ന് അഞ്ചും ആറും കുട്ടികൾ മാത്രമാണ് ഉള്ളത് പിന്നെ കളിയുടെ സമയങ്ങളിലാണെങ്കിൽ മൊബൈൽ ഗെയിമുകൾക്കാണ് ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം കായികാധ്വാനം വളരെ കുറച്ചുകൊണ്ടാണ് അവർ അധ്വാനശേഷി അവർ അത് പല ജോലികളിൽ ഏർപ്പെടുന്നത് ഇങ്ങനെയൊക്കെ ഇരുന്നാലും സോഷ്യൽ മീഡിയക്ക് ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട് മനുഷ്യർ അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യങ്ങൾ ഉള്ളെ എഐയുടെ വരവോടു കൂടി പല ജോലി സാധ്യതകളും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുവാണ് എന്നാലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനറിയാവുന്നവന് അത് നല്ല രീതിയില് ഉപയോഗിക്കാൻ സാധിക്കും